കേൾക്കാം പറയു ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ

ആ നമുക്ക് വീട് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ വീടും സ്ഥലവും കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആ നമുക്കിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എവിടെയാണ് വീട് നോക്കുന്നത് എങ്ങനെയുള്ള വീടാണ് നോക്കുന്നത് ഒരു നില വീടാണോ രണ്ടു നില വീടാണോ രണ്ടു നില വീടാണല്ലെ നോക്കുന്നത്

ആ ഞങ്ങൾക്കിപ്പോൾ ടൗൺ ഏരിയ ഞങ്ങൾക്കിവിടെ ഒരു ആറേഴു സ്ഥലത്ത് നമുക്കിപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ടൌൺ ഏരിയയിലാണെങ്കിലും വീടുകളുണ്ട് അതേപോലെയിപ്പോൾ കുറച്ച് വില്ലജ് ഏരിയ വേണമെന്നു പറഞ്ഞാൽ അവിടേയും നമുക്ക് വീടും സൗകര്യവുമൊക്കെയുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണു ടൗൺ ഏരിയ തന്നെ വേണമെന്നല്ലേ പറഞ്ഞത് അതെയതെ അപ്പോൾ നമുക്ക് ടൗൺ ഏരിയ എക്സ്ആക്ട് ടൗണൊക്കെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചു റേറ്റ് കൂടും അപ്പോൾ കുറച്ച് വിട്ടിട്ടാണെങ്കിലും നമുക്ക് ബസ് സൗകര്യങ്ങളും അതുപോലെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്മാൾ ടൗണോക്കെയായിട്ടുള്ള ഏരിയ നോക്കിയാൽ പോരെ എന്നാൽ ആ ഒക്കെ നമുക്കിപ്പോൾ രണ്ടുമൂന്നു സ്ഥലത്തുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു വീടുള്ളത് അപ്പോൾ എത്ര സ്ക്വർ ഫീറ്റിൻ്റെ വീടാണ് നോക്കുന്നത് ഇരുപതിനായിരം അല്ലെ ഓക്കേ അപ്പോൾ നമുക്ക് ആ ഇതില് ഒരു പതിനെട്ടു ആ ലെവലിലുള്ളൊരു രണ്ടുമൂന്നു രണ്ടു വീടെയുള്ളൂ നിലവിൽ ഇപ്പോൾ നമുക്കപ്പോൾ അത് സ്ഥലം എന്തെങ്കിലും നോക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ തന്നെ ഇത്ര സ്ഥലം വേണമെന്നു മ്മ് പിന്നെ കൃഷി ചെയ്യാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പൂക്കളോ ഗാർഡനോ അങ്ങനെയെന്തെങ്കിലും വെക്കാനുള്ള സ്ഥലം വേണ്ടേ ഓക്കേ അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം നോക്കണേൽ ഇപ്പോൾ സെന്റിനിപ്പോൾ ഈ ടൗൺ ഏരിയയിൽ എന്നൊക്കെ പറയുമ്പോൾ രണ്ടുലക്ഷം രൂപ ഇത്രയും ഇത് വരും സ്മാൾ ടൗൺ അല്ലെ ജസ്റ്റ് ഉള്ളിലേക്കല്ലേ അപ്പം നമുക്ക് ആ ഒരു റേറ്റിൽ സെന്റിന് ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ടു നമുക്ക് നോക്കാം പിന്നെ പിന്നെ എന്താണ് എത്ര റൂം എങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഓക്കേ കുറച്ച് പഴയ മോഡലായാൽ കുഴപ്പമുണ്ടോ പഴയ മോഡൽ പുതിയ മോഡലങ്ങനെ നോക്കുന്നുണ്ടോ പുതിയ മോഡൽ ആണല്ലേ വേണ്ടത് ഓക്കേ അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞാല്ലോ ഇനിയിപ്പോൾ ബഡ്ജറ്റിപ്പോൾ എത്രയാണ് ഉദേശിക്കുന്നത് അതെ അല്ലെ അതിപ്പോൾ ആ എന്തായാലും ആളുമായിട്ടൊന്നു ക്ലയിറ്ന്റുമായിട്ടൊന്നു സംസാരിച്ചിട്ടേ ഞാനത് സംസാരിച്ചിട്ട് നേരിൽ കാണാം ഒന്നും കൂടി ഓക്കേ അപ്പോൾ എപ്പോഴാണ് വീട് കാണാൻ പറ്റുക ഒന്ന് വീട് കാണാൻ പോകണ്ടേ അപ്പോൾ എപ്പോഴാണ് സൗകര്യമുണ്ടാവുക ഒക്കെ ഒക്കെ ഞാനതു കഴിഞ്ഞിട്ടു എന്നാൽ വിളിക്കാം ഓക്കേ ശരി